കളിക്കുമ്പം നമുക്ക് എന്താ പറയാ മനസ്സിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറും നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ കളിക്കുമ്പോൾ വർത്തമാനം പറയുമ്പം എല്ലാമാകുമ്പോൾ നമുക്കൊത്തിരി ഒത്തിരി സന്തോഷങ്ങൾ തോന്നും അതായത് നമ്മൾ മൂടിക്കെട്ടി പുരക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കങ്ങ് വിഷമങ്ങളൊത്തിരീം കയറി വരും പക്ഷേ ആ സ്ഥാനത്ത് മറ്റൊരാളോട് പറയുമ്പോൾ അവരുമായിട്ട് ഒത്ത് ചേർന്നു വർത്തമാനം പറയുമ്പോഴും കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും അവരുമായിട്ട് എല്ലാം ചേരുമ്പോൾ നമ്മുടെ എല്ലാം നമുക്ക് അവരോട് പറയുമ്പോൾ നമ്മുടെ എല്ലാം മാറി നമുക്കെല്ലാത്തിനും സന്തോഷം കിട്ടും ആ സ്ഥാനത്ത് നമുക്ക് സങ്കടം വരുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കുമ്പം നമുക്കെല്ലാം അങ്ങ് മനസോണ്ടങ്ങ് മാറും മാറിപ്പോകുമങ്ങ് ആ സ്ഥാനത്ത് നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് കളിക്കുന്ന രൂപത്തിലോ ഒരു മ വിഷമിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് ചിരിച്ച് നമ്മളേ ഒന്ന് എന്താ പറയാ വാ നമുക്ക് പോയി അത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമുക്കൊത്തിരി അങ്ങ് സന്തോഷം തോന്നും ഇപ്പം എല്ലാം കൊണ്ടും കളിച്ച് മറിഞ്ഞ് നടക്കുക ഉല്ലസിക്കുക കളിക്കണ്ട സമയത്ത് കളിച്ച് തന്നെ നടക്കുക അന്നേരമപ്പം നമുക്ക് എല്ലാം എല്ലാത്തിൽ നിന്നൊരു സന്തോഷം കിട്ടത്തൊള്ളന്ന് പിന്നെ നല്ല രീതീ എന്താപ്പ ഓക്കേ